ഒരു ചെടി വളരാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ല വളമുള്ള മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമ്മൾ കൂടുതലും മരങ്ങളും ചപ്പും വീണ സ്ഥലത്തെ മണ്ണാണെങ്കിൽ കൂടുതലും വളം കിട്ടും അതേപോലെതന്നെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയും ചപ്പും ചവറും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് കഴിയുന്നതും നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതതാണ് പച്ചക്കറികൾക്കായാലും നമ്മൾ രാസവളം ഉപയോഗിക്കാതെ ഇരിക്കുകയാണെങ്കിലും കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കുകയും നമ്മൾക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ നല്ലതാണ് അതേപോലെ ചാണകപ്പൊടി ഉപയോഗിക്കുന്നത് ഏറ്റവും ഉചിതമാണ് അതേപോലെ നമ്മൾ വേപ്പിൻ പിണ്ണാക്കിൽ നമ്മൾ അതിൽ ചാണകം കലക്കിയിട്ട് അത് ഒരു പത്ത് പതിനഞ്ച് ദിവസം വച്ചിട്ട് അത് പുളിക്കും പുളിക്കുമ്പം അതെടുത്തിട്ട് നമ്മൾ ഈ ചെടികൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കായ് ഫലങ്ങളും ഉണ്ടാവും അതേപോലെതന്നെ പയറിനായാലും നമ്മൾ നല്ലവണ്ണം ചാണകപ്പാൽ ഒഴിച്ചു കൊടുക്കുക അതേപോലെ ഗോമൂത്രം നല്ലൊരു വളമാണ് ചെടികൾക്ക് പച്ചക്കറികൾക്കൊക്കെ നമ്മൾ ഗോമൂത്രം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലവണ്ണം വെള്ളം കൂട്ടിയിട്ട് ആ ഗോമൂത്രം ഒഴിച്ചു കൊടുക്കുന്നത് നല്ല വിളവിനു കാരണമാണ്